അത് പല ടൈപ്പ് ഉപയോഗിക്കുമല്ലോ ഇപ്പോൾ മെയിനായിട്ട് നല്ല ഫോട്ടോകളൊക്കെ എടുക്കാനാണെങ്കിൽ നമ്മൾ വേറൊരു ക്യാമറ ഉപയോഗിക്കും ക്യാമറയെന്നു പറഞ്ഞ് അതും പല ടൈപ്പ് ക്യാമറയുണ്ട് ക്യാനോണിൻ്റെ കേണൽ ത്രീ സിക്സ്റ്റി ഡി ഫിഫ്റ്റി ഡി അങ്ങനെ അങ്ങനെ പല പല ടൈപ്പ് കാരണം അതിനനുസരിച്ച് ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഫീച്ചേഴ്സും കൂടും നമ്മൾ ക്യാമറ ഫോട്ടോ മെയിനായിട്ടും എടുക്കുന്നു എന്നു പറഞ്ഞാൽ നമ്മൾ അവരെ അടുത്ത് എടുത്ത് പോസ്റ്റ് ചെയ്യാനും അത് കൂടുതൽ കാശു മേടിക്കാനും ആണ് കാരണം അത് പ്രൊഫഷണൽ ഫോട്ടോഗേഫേഴ്സ് ഉപയോഗിക്കുന്ന ക്യാമറകൾ എല്ലാം ഡി എസ് എൽ ആർസുള്ള ക്യാമറാസ് ആയിരിക്കും കാരണം അവർക്ക് അത് അവരുടെ തൊഴിലാണ് അവളെ അവർക്കതിന് കാശും കിട്ടുന്നുണ്ട് കാരണം ഇവരെടുക്കുന്ന ഫോട്ടോകളുടെ ക്ലാരിറ്റിയും ഇതൊക്കെ കൂടാനാണ് ക്യാമറകൾ ഉപയോഗിക്കുന്നത് പിന്നെ ഫോണിൽക്കൂടി ക്യാമറ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് അപ്പോഴത്തെ ആ ഒരു മുമെൻ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫോണിലും ക്യാമറയായിട്ട് വരാൻ തുടങ്ങിയത് ആദ്യം തൊട്ടെ ക്യാമറ ഉണ്ട് ഇല്ലായിരുന്നു അതുകഴിഞ്ഞ് രണ്ട് മൂന്ന് മോഡല് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഫോണിലും ക്യാമറയാവാൻ തുടങ്ങിയത് ക്യാമറ എടുക്കുന്നത് നമുക്ക് അപ്പോൾ അപ്പോഴത്തേക്ക് മുമെൻ്റ്സ് ക്യാപ്ച്ചർ ചെയ്യാൻ ഡി എസ് എൽ ആർ പല ടൈപ്പുണ്ടല്ലോ എഫ് ഫിഫ്റ്റി ഡി സിക്സ്റ്റി ഡി മെയിനായിട്ട് ഒരു ബേസിക് സ്റ്റാൻഡേഡ് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ചെറിയ കുറഞ്ഞ ക്യാമറ വേണം പക്ഷെ അത്യാവശ്യം നല്ല വൈഡ് രീതിയിലുള്ള നല്ല കളേഴ്സും നല്ല സെറ്റിങ്സും നല്ല ഫിൽട്ടേഴ്സൊക്കെ മാറ്റി മാറ്റിയിടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല കൂടിയ ക്യാമറകൾ തന്നെ എടുക്കേണ്ടി വരും ക്യാമറ എന്നു പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോക്കാരനെ സംബന്ധിച്ച് സംബന്ധിച്ച് അതവരുടെ അന്നദാനവും അവൻ്റെ പാഷനുമാണ് കാരണം ഫോട്ടോ പല രീതിയിലുള്ള ഫോട്ടോ നമ്മളെടുക്കും എല്ലാ അത് എല്ലാത്തിനും വ്യാലുവും കാണും കാരണം അത്രയും നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ നമുക്കൊരു ക്യാമറ വേണം ക്യാമറയുടെ മിനിമം വിലയെന്നു പറഞ്ഞാൽ ഒന്നൊന്നര ലക്ഷമാണ് ഒന്നന്നര ലക്ഷം ഇല്ലാതെ ഒരു ക്യാമറ നമുക്ക് മേടിക്കാൻ പറ്റില്ല ക്യാമറ ക്യാമറയെന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി കിണ്ണംകാച്ചി ക്യാമറ ആവണം കാരണം അങ്ങനത്തെ ഒരു നല്ലൊരു ക്യാമറ ഉണ്ടായിട്ടേ കാര്യമുള്ളു ഇല്ലെങ്കിൽ ക്യാമറ കൊണ്ടൊരു കാര്യവുമില്ല ക്യാമറ ഇല്ലെങ്കിൽ ക്യാമറ ഒന്നും കൊള്ളത്തില്ല കാരണം ക്യാമറയാണ് അടിപൊളി ക്യാമറ അപ്പം ക്യാമറ നല്ലൊരു ക്ലിയർ ഫോട്ടോ എടുക്കാനും നല്ല രീതിയിലുള്ളൊരു വ്യൂ കൊടുക്കാനും എല്ലാം നമ്മളിതിനെ സഹായിക്കണം അപ്പം പല ടൈപ്പ് ഫോട്ടോ എടുക്കാൻ ചിലപ്പോഴൊരു ക്യാമറ മതിയായിരിക്കും പക്ഷെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ നല്ലൊരു പ്രൊഫഷണൽ രീതിയിലൊരു ക്യാമറ എടുക്കാൻ നമ്മൾ നല്ലൊരു ക്യാമറ ഉപയോഗിക്കണം അതിനുമാവും ഒരു മൂന്നര നാലു ലക്ഷം രൂപ ക്യാമറകളോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റാൻഡ് അതിൻ്റെ വള്ളി എല്ലാ കാര്യങ്ങളും കേബിളും ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മേടിക്കാനും അത്യാവശ്യം നല്ലൊരു റേറ്റാവും കാരണം പല ടൈപ്പ് ഫിൽട്ടേഴ്സ് ഒക്കെവെച്ച് എടുക്കുന്നത് ക്യാമറകൾ ഓരോ തവണ ക്യാമറകൾ ഫീച്ചേഴ്സ് കൂടിക്കൂടി കൂടി വരുന്നു ആ ഓരോ ഫീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ ക്യാമറ നല്ലതായിരിക്കണം ക്യാമറയുടെ സവിശേഷതകളെല്ലാം നമ്മൾ പലതും ഗൂഗിൾ സെർച്ച് നമ്മൾക്ക് കാണാൻ പറ്റും കാരണം ക്യാമറ നല്ല അടിപൊളി ക്യാമറയാണ് ക്യാമറ ഇല്ലെങ്കിൽ ഒരു ക്യാമറ നടക്കില്ല ക്യാമറ മീൻസ് ക്യാമറ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് ക്യാമറയാണ് അവൻ്റെ ജീവൻ കാരണം ഇല്ല ക്യാമറ ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം നടക്കില്ല അവൻ്റെ കാര്യങ്ങൾ നടക്കില അവൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല